കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക പാരമ്പര്യ ആചാരങ്ങൾ ഏതൊക്കെയാണ് കാക്കാരശ്ശി കളി നിറ തിരുവാതിര നൃത്തം ശരിയാണ് ഇതെല്ലാമാണ് എന്താണ് പറയുക കേരളത്തിലെ സാംസ്കാരിക പാരമ്പര്യ ആചാരങ്ങള് കേരളത്തിലെ ഈ ആചാരങ്ങൾ എന്നുള്ളത് അതിപ്പം സാംസ്കാരികം ആയാലും സാംസ്കാരികം അല്ലാത്ത ആയാലും ആചാരങ്ങൾ ഇപ്പം ആചാരങ്ങൾ മാത്രമായി അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് സംസ്കൃത പാര്യം പദ്യ പാരായണം സംസ്കൃത ക്ലാസുകൾ ഇതെല്ലാം കേരളത്തിന്റെ ആചാരങ്ങളില് പെടുന്ന ഏനു അതേപോലെ സ്കൂൾ കലോത്സവത്തിന് ഈ സംസ്ഥാന എന്താണ് പറയുന്നത് സാംസ്കാരിക പാരമ്പര്യങ്ങൾ എല്ലാം പെടുന്നതായിരുന്നു സംസ്കൃതം എന്നുള്ള ലാംഗ്വേജ് ആ ഭാഷ ഇന്ന് അന്യം നിന്നു പോയി അന്യം നിന്നു എന്നല്ല ഇവിടുത്തെ കുറേ രാഷ്ട്രീയ പ്രവര്ത്തകരും മത പരിവര്ത്തകരും കൂടി അന്യം നിര്ത്തി ഇപ്പം ഏറ്റവും കൂടുതൽ ഈ സംസ്കൃതം അവോയിഡ് ആക്കിയിട്ട് അറബിക് ആണ് കയറ്റൽ നമ്മുടെ സാംസ്കാരിക ആചാരം ആചാരവും പാരമ്പര്യവും എന്നെല്ലാം പറയുമ്പോൾ തന്നെ അതെല്ലാം വെറും പറച്ചിൽ മാത്രായി മാറൽ സംസ്കൃതം എന്തെന്ന് പോലും ഇനിയുള്ള തലമുറയ്ക്ക് അറിയില്ല ഓ അങ്ങനെയാണോ ഇവിടെയുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യമാണ് ഇനി വരുന്ന കാരണം എന്ന് പറഞ്ഞാൽ മെയിന് നമ്മുടെ രാഷ്ട്രീയക്കാരും ഈ മത ഭ്രാന്തന്മാരും കുടി ചെയ്ത ഒരു വെറും പരിപാടിയാണ് ഇപ്പം കമ്പ്ലീറ്റ് അല്ലെങ്കിൽ ഈ നൃത്തം തിരുവാതിര പൂരക്കളി കാക്കാരശ്ശി കാക്കാരശ്ശി എന്നെല്ലാം പറഞ്ഞ ഇന്നത്തെ തലമുറക്ക് അറിയുമോ എന്നു തന്നെ അറിയില്ല കാരണം ഇതേപോലെ യക്ഷഗാനം കഥകളി ഇതെല്ലാം കേരളത്തിന്റെ തന്നെയാണ്

ഇതെല്ലാം ഇവർ അന്യം നിര്ത്തുന്ന ആണ് അന്യം നിന്നു പോകുന്നത് അല്ല സാംസ്കാരിക പാരമ്പര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രിയക്കാർ വരുമ്പോഴോ മ മന്ത്രിമാർ വരുമ്പോഴോ മാത്രം അവരെ മുൻപിൽ കെട്ടി ആടിച്ചു നടത്തുന്ന തെയ്യം എല്ലാവരും മുന്പിൽ മാത്രാണ് നിൽപ്പുള്ളു കാരണം നമുക്കിത് ഇതിന് ആളില്ലാത്തതോ ഇതൊന്നുമല്ല ഇത് ഈ നാട്ടിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന സംഭവമാണ് മറ്റുള്ളവരിൽ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് അതിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ കേരളത്തിൽ മാത്രമാണ് ഈ ഇങ്ങനെയുള്ള ഒരുപാട് പാരമ്പര്യങ്ങളും ആചാരങ്ങളും ഇല്ലാണ്ടാക്കാന് വേണ്ടി ചെയ്യുന്നത് പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നു എന്നാണ് പറയണ്ടത് പക്ഷെ പാരമ്പര്യമേ ഇവർ ഇല്ലാതാക്കാന് വേണ്ടിയാണ് ശ്രമിക്കുക കാക്കാരശ്ശി കളി എന്ന് പറഞ്ഞാൽ ഇന്ന് എത്ര ആള്ക്കാർക്ക് അറിയും എന്നറിയില്ല പഴയ തലമുറയ്ക്ക് പഴയ തലമുറ എന്ന് പറയുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസിനു മുകളിലുള്ളവർക്ക് ഇതിനെ പറ്റി കറക്റ്റ് ഉള്ളൊരു പറഞ്ഞു തരാന് പോലും അറിയില്ല നിറ നിറ എന്നെല്ലാം പറഞ്ഞാൽ ആർക്കും അറിയണമെന്നില്ല തിരുവാതിര എന്ന് പറയുന്നത് ഇന്ന് വെറും സ്കൂൾ യൂത്ത് ഫെസ്റ്റിവല് അതേ പോലെ കലോത്സവം ഇങ്ങനെയുള്ള പിന്നെ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ ഇതിലേക്ക് ഇതിലേക്ക് മാത്രമായി മാറിക്കഴിഞ്ഞു കേരളത്തിന് ഇനി പറയാം എന്നല്ലാതെ സാംസ്കാരികം ആചാരങ്ങൾ പറയാം എന്നല്ലാതെ ഇവയിലൊന്നും ഒരാള്ക്കും ഒരു അറിവുണ്ടായിരിക്കണം എന്നില്ല എന്നാൽ ഇങ്ങനെ അല്ലേ ആണ് ഇതെന്ന് സംഭവം പറയാം കലാമണ്ഡലം എന്ന് പറയുന്നത് ലോകപ്രശസ്തമായ കലാമണ്ഡലം എന്ന് പറയുന്നത് ഒരുപാട് ഗുരുക്കന്മാരും ആചാര്യന്മാരും ഉള്ള ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് ഉണ്ടായിരുന്നു അതും ഈ പറയുന്ന പോലെ രാഷ്ട്രീയ മുതലെടുപ്പും മത ഭ്രാന്തന്മാരും കൂടിയിട്ട് ആ ഒരു സംഭവം ഇല്ലാണ്ടാക്കി കഥകളി ഇന്ന് കേരളത്തിൽ അപൂർവങ്ങളിൽ അപൂർവമാണ് കാക്കരശ്ശി കളി എന്ന് പറഞ്ഞിട്ട് ഇന്ന് കാണാറേയില്ല തിരുവാതിര കാണും ഏതിനാണ് ഈ യൂത്ത് ഫെസ്റ്റിവലിനോ അല്ല ഇങ്ങനെയുള്ള പരിപാടിക്കോ ഒരു തിരുവാതിര കാണും അതാണോ തിരുവാതിര എന്നുള്ളത് പണ്ട് കാലത്തുള്ളവരോട് ചോദിച്ചാൽ ഇതാണോ തിരുവാതിര അങ്ങനെ ഒരു സാംസ്കാരികവും പൈതൃകവും പാരമ്പര്യവും എല്ലാം കളഞ്ഞു പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കാണുന്നുള്ളത് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതാണ് കേരളം എന്ന് പറയുമ്പോൾ കേരളീയർ കഥകളി എന്നുള്ളത് കഥകളി എന്തെന്ന് ഇപ്പോൾ ചോദിച്ചാൽ കുറേ മറ്റേ പച്ച കുത്തിയിട്ട് വരുന്ന സംഭവമാണ് കഥകളി കുറേ പച്ച കുത്തി വയറിനു ഷേർട്ട് ഇടാതെ വയറിനു താഴെ ഒരു ഇത് കെട്ടിയതാണ് കഥകളി സത്യം പറഞ്ഞാൽ ഇത് സാംസ്കാരിക നായകർ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് സാംസ്കാരികവും പാരമ്പര്യവും നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നിവിടെ കേരളത്തിലെ കുറെ യുവജന സംഘടനകളുണ്ട് പക്ഷേ ഇവർക്ക് ആർക്കും ഗുരുക്കളോ അതേ പോലെ ആചാര്യന്മാരോ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടകരമായ സത്യം ഇതേ പോലെയാണ് നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് പൂരക്കളി ഇന്ന് ഈ ഉത്സവത്തിനും ഇന്നു യൂത്ത് ഫെസ്റ്റിവലിനും എല്ലാം അത് കാണാന് പറ്റും പക്ഷെ പഴയ ആള്ക്കാരോട് ചോദിച്ചാൽ ഇത് ചോദിക്കും ഇതാണോ പൂരക്കളി എന്ന് എന്നാൽ മറ്റു നാടുകളില് അങ്ങനെയല്ല അവർ അവരെ സാംസ്കാരികം പാരമ്പര്യം ആചാരം ഇതെല്ലാം കാത്തു സൂക്ഷിക്കും കേരളത്തില് പറച്ചിൽ മാത്രമായി മാറുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് താല്പര്യമില്ലായ്മ അല്ല അത് അത് താല്പര്യമില്ലായ്മയിലേക്ക് നയിക്കുന്ന പലകാര്യങ്ങളും കാരണം ഇതെല്ലാം ഉണ്ടായിരുന്നത് എന്താണ് പറയുക ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ടീമിന്റെ അടുത്താണ് ഒരു എന്താണ് പറയുക ഒരു കൂട്ടം ആള്ക്കാരുടെ അടുത്തായിരുന്നു അതെല്ലം പതിയെ പതിയെ പതിയെ നശിപ്പിച്ചു നശിപ്പിച്ചു നശിപ്പിച്ചു ഇന്ന് കാണുന്നത് ഇന്ന് കാണുന്ന ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ ഒരു തലമുറയും കൂടി അതായത് അൻപത് വയസിനും അതിനു മുകളിലുള്ള ആ ഒരു തലമുറയുടെയും കൂടി കഴിഞ്ഞാല് കേരളത്തിൽ ഇത് വെറും വായിക്കാന് കൊള്ളാമെന്നല്ലാതെ മനുഷ്യന്മാർക്ക് ഒരു പ്രയോജനവും ഉണ്ടാകുന്ന ഒരു സംഭവമായി മാറില്ല ഇതിലെല്ലാം പറയുന്നത് ഇതെല്ലാം പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്നും പാരമ്പര്യം ആണ് എന്നാണ് ഇത് വെറും പറച്ചിലാണ് ഈ കാക്കാരശ്ശി കളി എന്ന് തന്നെ പറഞ്ഞാൽ എത്ര പേർക്ക് ഇതറിയാം എത്ര പേര് ഇത് കണ്ടിട്ടുണ്ട് അല്ല ഇനി എത്ര പേര്ക്കിത് കാണാന് പറ്റും ഒന്നുമില്ല ഇത് കഴിഞ്ഞു അപ്പോൾ ശ്രദ്ധിക്കേണ്ടയാണ്